എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരു ഹോബി തന്നെയാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ് ആഗ്രഹം ചെയ്താലും ചെയ്താലും തീരാത്ത ഒരു ആഗ്രഹമാണ് യാത്ര ചെയ്യുക എന്നുള്ളത് യാത്ര ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ എന്തായാലും ഒരു കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്യുന്നതിൽ ഒരു സംശമായോ യാതൊരു സംശയവുമില്ല ഈ യാത്ര എനിക്കു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇതുവരെ കാണാത്ത ആളുകളെ കാണുക ഇതുവരെ കേൾക്കാൻ പറ്റാത്ത ഭാഷകൾ കേൾക്കുക ഇതുവരെ ആസ്വദിക്കാൻ പറ്റാത്ത പ്രകൃതം ആസ്വദിക്കുക എന്നുള്ളതൊക്കെ ഞങ്ങൾക്കു നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒരു മോട്ടിവേറ്റ് ആയ കാര്യങ്ങളാണ് ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന തരുന്നൊരു പാഠമാണ് ഉപദേശമാണ് യാത്ര എന്ന് യാത്രയെന്നുള്ളത് അപ്പോൾ ഈ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തു പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ആ ഒരു ചിരി അതു വേറെ തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഒരു യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകും ഇതാണ് യാത്രയുടെ പ്രത്യേകത എന്നുള്ളത് യാത്ര ചെയ്യുക സ്വാഭാവികം യാത്ര ചെയ്യുന്നവൻ്റെ മനസ്സിൽ എതിർപ്പും ദേഷ്യങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്നതാണ് ചൊല്ല് അതായത് കെട്ടി നിൽക്കുന്ന വെള്ളത്തെ പോലെയാണ് യാത്ര ചെയ്യാത്തവൻ്റെ മനസ്സ് എന്നുള്ള ഒരു കവിത ഞാനെവിടെയോ ഒന്നു കേട്ടതു പോലെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എനിക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അതായത് ഒഴുകുന്ന നദിയെ പോലെ ശുദ്ധമായ വായുവുള്ള ഒരു പ്രകൃതമാണ് നമ്മുടെ യാത്ര ചെയ്യുന്നവൻ്റെ മനസ്സ് യാത്ര ചെയ്യുന്നവൻ്റെ മനസ്സ് ഒഴുകുന്ന നദിയെ പോലെയാണ് അതായത് അവൻ്റെ ആ ഒരു ഖൽബിലെ ആ ഒരു കറകളൊന്നും ഉണ്ടാകാൻ സാദ്ധ്യതയില്ല കാരണം അവൻ യാത്ര ചെയ്യുന്ന ഇടയിൽ അവനിക്ക് ദേഷ്യം അങ്ങനൊന്നും ഉണ്ടാകില്ല കാരണം യാത്ര ചെയ്യുമ്പോൾ ഇതുവരെ കാണാത്തൊരുപാട് സംസ്കാരങ്ങൾ ഞങ്ങൾ പഠിക്കുന്നു അതുപോലെ തന്നെ ആ സംസ്കാരങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ പ്രയാസങ്ങൾ മറ്റുള്ള ഞമ്മളെക്കാൾ താഴ്ന്നവരെ ഒരുപാട് ഉണ്ടെന്നു ഞങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്നു ഞങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾ ഞങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ മോട്ടിവേറ്ററാണ് യാത്ര എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യുന്നവൻ ഒരിക്കലും ദേഷ്യപ്പെടുന്നത് ചീത്ത കാര്യത്തിന് മോശമായ കാര്യത്തിൽ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യത്തിന് ഒരിക്കലും ദേഷ്യപ്പെടാനോ ഇടപെടാനോ ഒന്നും പോകില്ല എന്നുള്ളത് വ്യക്തമാണ് യാത്ര ചെയ്യുന്നവൻ വളരെ നിഷ്കളങ്കനും അതുപോലെ തന്നെ നല്ല ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്നവനുമാണ് അതായത് അവനിക്ക് ഒരുപാട് അനുകൂലങ്ങളും അനുകൂലങ്ങളും അതായത് അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് അനുകൂലമായ കാര്യങ്ങൾ അവൻ നേരിട്ടു പ്രതികൂലമായ കാര്യങ്ങൾ അവൻ നേരിടെ നേരിടേണ്ടി വന്നു അവനത് ഫേസ് ചെയ്ത് വീണ്ടും വീണ്ടും മുന്നോട്ടു പോയി ആരും ഇതുവരെ കേൾക്കാത്ത ഭാഷകളൊക്കെ കേട്ട് മനോഹരമായി ആസ്വദിച്ച് പ്രകൃതം ആസ്വദിക്കുക എന്നുള്ളത് ഒരു ദൈവം പറയുന്നുണ്ട് ദൈവം ദൈവത്ത് ദൈവം നമ്മൾക്കു നൽകിയൊരു കിത്താബിലെ ഒരു കിത്താബിൽ പറയുന്നുണ്ട് അതായത് യാത്ര ചെയ്യുക അത് വളരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ഒരുപാട് തിന്മകൾ അതു മാഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ടു തന്നെ യാത്ര ചെയ്യുമ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും എന്തൊക്കെ ഇനി ജീവിതത്തിൽ ഇതൊന്നും അല്ല ജീവിതം ഇതിനപ്പുറം ഒരു ജീവിതം ഇതിനപ്പുറം ഒരു ലോകം ഇതിനപ്പുറം ഒരു നാട്ടുകാർ ജനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ബോധ്യം അവനിക്ക് വരും അവൻ സാധാരണ ഒരാഴ്ച്ച അതായത് ഒരു ദിവസത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ വിശന്നു കഴിഞ്ഞാൽ അതായത് ആ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ അവൻ വീട്ടിൽ പോയി കച്ചറ കൂടി ബഹളം വെച്ച് അങ്ങനെ ഉറങ്ങുന്ന ഒരുത്തൻ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവനുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം അതിനപ്പുറം ഇതുപോലും കിട്ടാത്ത ഇതിനുപോലും അർഹത ഇല്ലാത്ത ഒരുപാട് ആളുകൾ വേറെ വേറെ നാട്ടിൽ വ്യത്യസ്തമായ ജനങ്ങളുണ്ട് ഒരു നേരത്തെ മാത്രമല്ല ഒരു ദിവസത്തെ രണ്ടു ദിവസത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ അവരെക്കെ കാണുമ്പോൾ ഏതൊരു തെമ്മാടിയാണെങ്കിലും ഏതൊരു ഭീകരൻ ആണെങ്കിലും അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വല്ലാത്തൊരു ഇത് നമ്മൾക്കുണ്ടാകും സ്വാഭാവികമാണ് അത് കാണുമ്പോൾ ഇതൊന്നും അല്ല ജീവിതം ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കിട്ടാത്തതിന് ബഹളം വെച്ച എനിക്ക് രണ്ട് ദിവസം പോലും ഭക്ഷണം കഴിക്കാതെ ഇവിടിരിക്കുന്ന ഈ പാവങ്ങളെ കാണുമ്പോൾ ഇതൊന്നും ജീവിതമല്ലാ എന്നു നിങ്ങൾക്ക് ബോദ്ധ്യമാകും അവനാ ജീവിതത്തിൽ നിന്നും മാറി അവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ മറ്റുള്ള ജനങ്ങളെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും മാത്രം ജീവിക്കുന്ന ഒരു മനസ്സായി ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ഒരു അവൻ്റെ മനസ്സ് മറ്റുള്ളവർക്കും വേണ്ടിയൊരു ഇടമായി മാറും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് യാത്ര ചെയ്തെന്നും പറയാൻ എനിക്കില്ല ഞാൻ അങ്ങനെ ഒരുപാടൊന്നും യാത്ര ചെറുപ്പത്തിൽ അങ്ങനെ ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടില്ല എങ്കിലും എനിക്ക് ഓർമ്മയിലുള്ള രണ്ടു മൂന്ന് യാത്രകളുണ്ട് അതായത് ഞാൻ കേരളത്തിലെ ഇടുക്കി എന്ന ആ മലപ്രദേശങ്ങളിങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു കാറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു കാറ്റ് ആ ഒരു കാറ്റിൽ നിന്നു തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് യാത്ര ഒരു ഈ കലാകാരൻ എന്ന രീതിയിൽ ഈ പുസ്തകമൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നൊരു ആൾക്ക് ആ ഒരു കാറ്റിൽ നിന്നു വരുന്ന ഒരുപാട് മാധൂര്യങ്ങൾ അതൊക്കെ അനുഭവിക്കുക തന്നെ വേണം അതൊക്കെ അനുഭവിക്കുമ്പോഴേ മനുഷ്യൻ മനുഷ്യനായി തീരുന്നുള്ളൂ യാത്ര ചെയ്യുക ആരാണെങ്കിലും ഒരു യാത്ര ജീവിച്ചു ജീവിച്ചിട്ട് ഇതുവരെ ഒരുപാട് കാലം ജീവിച്ചിട്ട് യാത്ര ചെയ്യാതെ മരിക്കുക എന്നുള്ളത് വളരെ സങ്കടകരമായൊരു ഒരു കാര്യമാണ് അതായത് യാത്ര ചെയ്യണം യാത്ര എന്നുള്ളത് ഒരു വലിയ പൈസ അതിനു വലിയ തുകയോ അല്ലെങ്കിൽ സമ്പന്നരാകണം എന്നൊന്നുമില്ല യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാൻ പണം ഒന്നും വേണ്ട നമ്മുടെ തൊട്ടയലത്തെ നാടുകളിൽ പോയി അവിടെയുള്ള പ്രദേശങ്ങൾ സ്വാഭാവികവാ മനുഷ്യനു സ്വാഭാവികവാ നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല കാഴ്ചകളൊന്നും ഞങ്ങൾ കാണില്ല ഞങ്ങൾ നേരെ പോകുക ഒരുപാട് ദൂരം പോയി മലപ്രദേശങ്ങളിൽ കയറി അവിടെ കാണാത്ത കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നു പറയുന്നതു പോലെയാണ് അതായത് സ്വന്തം നാട്ടിലുള്ള കാര്യങ്ങൾ എന്തെന്നുപോലും അറിയാത്ത അറിയാതൊരുത്തൻ മറ്റുള്ള നാട്ടിലേക്കും രാജ്യങ്ങളിലേക്കും സ്റ്റേറ്റിലേക്കൊക്കെ പോയി അവിടുത്തെ ഭംഗി ആസ്വദിക്കുക അവിടുത്തെ ഭംഗി അവിടുത്തെ പ്രകൃതം ആസ്വദിക്കുക എന്നുള്ളതു മാത്രമല്ല അതിനപ്പുറം സമ്പന്നരായ സമ്പന്നരല്ലാത്തവർക്ക് യാത്രയില്ലയെന്നു ആയെന്നു ആരും കരുതണ്ട അതായത് സമ്പന്നരില്ലാത്തവർ സമ്പത്തില്ലാത്തവർക്ക് അവരുടെ നാട്ടിൽ തന്നെ എത്ര എത്ര കാഴ്ചകളിണ്ടാകാം ഒരുപാട് കാഴ്ച്ചകൾ അവർ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നടന്ന് ജസ്റ്റ് നടന്നാലെത്തുന്ന ആ ഒരു അടുത്ത് ആ ഒരു ഡിസ്റ്റൻസിലൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ടാകാം അവനിതുവരെ കണ്ടിട്ടുണ്ടാകില്ല അവനെന്നു മാത്രമല്ല ആ നാട്ടുകാരാരും അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന കാഴ്ചയാണ് സ്വന്തം നാട്ടിലെ കാഴ്ചകൾ അതൊക്കെ കാണുക അവിടുത്തെ ഭംഗി ആസ്വദിക്കുക അതൊക്കെ വേറെ തന്നെയാണ് അതൊന്നും ഇക്കാലത്ത് എല്ലാവരും മനസ്സിലാക്കാതെ പോകുന്ന സാധാരണ കാര്യമാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് എല്ലാവരും റീൽസ് നോക്കി സമയം കളഞ്ഞിരിക്കുമ്പോൾ അതിൽ കൂടി വന്നൊരിടമാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അത് കേട്ട് കേട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അങ്ങനൊരു യാത്ര അതായത് അങ്ങനെ കേട്ട് കേട്ട് എല്ലാവർക്കും മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് അവിടെ റോഡൊക്കെ തടസ്സങ്ങളിലാണുള്ളത് റോഡൊക്കെ തിരക്കായി ഫുള്ള് കേരളക്കാരിങ്ങനെ മലയാളികളൊക്കെ അങ്ങോട്ടേക്ക് പോയി അതായത് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ആരും ഇല്ലാത്ത ഇടങ്ങളിൽ പോയി അവിടുത്തെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് അത് വെറുതെ ഇങ്ങനെ ആസ്വദിക്കാന്നുമന്നല്ല അത് നമ്മുടെ അത് ഇങ്ങനെ വെറുതെ സമയം കളയാനുള്ളതല്ല അങ്ങനെ യാത്ര ചെയ്യുന്നത് അതായത് ഇപ്പോഴത്തെ കാലത്തെ യാത്ര ചെയ്യുന്നത് എന്തിനാണെന്നു അറിയുമോ ഇങ്ങനെ പോയി അവിടെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിങ്ങനെ പോസ്റ്റ് ഇടുക അവർക്ക് ഫോട്ടോ ഭംഗിയായി കിട്ടണം മറ്റുള്ളവർക്കറിയണം ഞാനിങ്ങനെ ഒരുപാട് ദൂരം യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വലിയ ആളാണ് എന്നതിനാണ് കേവലം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് യാത്ര ചെയ്യുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബ തകരാറുകൾ ഇതൊക്കെ ഒരുപാട് സഹിച്ച് ഞങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അപ്പം ഇതൊക്കെ ഞങ്ങൾ അറിയണം ഇതിനെ കുറിച്ച് ഇതൊക്കെ ഞങ്ങൾ മൈൻഡൊന്നു ഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ അങ്ങു മറക്കണം ഈ ഒരു സെക്യൂ ഈ ഒരു ടെൻഷനെ ഒക്കെ ഞങ്ങൾ അവിടുന്ന് മൈൻഡ് ഫ്രഷ് ചെയ്ത് വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങൾ മൈൻഡിനെ മാറ്റി എടുക്കുക